ഹലോ സമദ് ഡോക്ടറല്ലെ ആ ഡോക്ടറെ ഇത് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായ അബ്ദുൾ ഫത്താഹ് ഇല്ലേ കാസർഗോഡ് നിന്ന് വന്നത് ആ ഇല്ലില്ല സാറേ എനിക്ക് പനിയും ചുമയൊന്നും കുറഞ്ഞിട്ടില്ല നല്ലത് പോലെ ചുമക്കുന്നുണ്ട് ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലത് പോലെ ചുമക്കുന്നുണ്ട് ഈ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടിപ്പോൾ ഏയ് ഇല്ല അല്ല ആ അതെ ചുമച്ച് ചുമച്ച് ചുമച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഫുൾ ടൈം ചൂടുവെളളമല്ല ബോറിലത്തെ വെള്ളമാണ് കുടിക്കുന്ന ഉള്ളത് ബോർവെല്ലിലെത്തെ വെള്ളമാണ് കുടിക്കാനുള്ളത് ആ അങ്ങനെ കുടിക്കണം അല്ലെ ഇനിയിപ്പം ഇല്ല അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല പിന്നെ ഉള്ളത് ജലദോഷം ഉണ്ടായിരുന്നു നന്നായിട്ട് ജലദോഷം ഉണ്ട് നല്ലത് പോലെ ആ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് കഴിക്കുന്നൂണ്ട് ഇപ്പോൾ

ആ എഴുതി തന്നത് തന്നെ വാങ്ങിയത് ഇപ്പോൾ ഇത് ജലദോഷവും പനിയിൽ കുറവുണ്ട് ആ ചുമ മാത്രമാണ് ഇപ്പോൽ ഇതില്ലാത്തത് കുറയാത്തത് ആ ഡോക്ടറിപ്പോൾ ആ അത് തന്നെ

ആ സാറെ ഞാൻ ഏത് ദിവസമെല്ലാം ഉണ്ടാവും

ഓ തിങ്കളാഴ്ച ആവും അല്ലെ ഓ അപ്പോൾ ഇത് സാറെ അതിന് മുമ്പ് കാണാൻ പറ്റില്ല അല്ലെ വീട്ടിൽ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ ആ സാറിൻ്റെ വീട് ഇവിടെ അടൂർ അല്ലെ ആ എത്ര മണിക്കാണ് വരേണ്ടത് സർ

ആ ശരി എന്നാൽ വരാം സർ ശരി സർ ഓക്കെ താങ്ക് യു